യോഗ എന്നു പറഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു വ്യായാമമാണ് കൊളസ്ട്രോളും പ്രെഷർ ഷുഗർ ഇങ്ങനെയുള്ളവർക്കൊക്കെ യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കാരാട്ടെ പോലെയുള്ളൊരു ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് യോഗയാണ് നല്ല ശരീരത്തിന് വ്യായാമം നമ്മൾ ഓരോ അസുഖങ്ങളൊന്നും സ്ഥിരം ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരസുഖങ്ങളൊന്നും വരാറില്ല എന്നാണ് പറയുന്നത് യോഗയെപ്പറ്റി നല്ല അഭിപ്രായമാണ് യോഗ ചെയ്യാൻ പോകുന്നവർ നമ്മുടെ അടുത്തുണ്ട് പിന്നെ കാരാട്ടെ പഠിക്കാനും അല്ലാത്ത ഓടാനും എക്സർസൈസിങ്ങ് ഇതിനൊക്കെ പോകുന്നവരുണ്ട് വീട്ടിലിരുന്നു ചെയ്യുന്നവരുണ്ട് യോഗയെപ്പറ്റി നല്ല അഭിപ്രായമാണ് യോഗ നമ്മുടെ അവിടെ ഞങ്ങളുടെ അടുത്തു തന്നെയുണ്ട് പൂക്കോട്ടമ്പാളം എന്നു പറയുന്ന സ്ഥലത്ത് അതിൻ്റെയൊരു സ്കൂളുണ്ട് യോഗ ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആൾക്കാരുണ്ടവിടെ യോഗ ചെയ്യാൻ പോകുന്നുണ്ട് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടാകും നല്ല ഇതാണ് ശരീരത്തിനും മനസ്സിനും വ്യായാമം അതു പോലെ തന്നെ ശരീരത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഇതിനെല്ലാറ്റിനും നല്ലൊരു ഇതാണ് യോഗ ചെയ്യുകയെന്നു പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളൊരു ശരീരം വാർത്തെടുക്കാൻ സ്ഥിരമായിട്ടത് ചെയ്യുകയാണെങ്കിൽ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടു തോന്നും പിന്നത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല നമുക്ക് നല്ലൊരു ഇതാകും ഓരോ അസു ഓരോ അസുഖങ്ങളൊന്നും ചെയ്യുന്നവർക്ക് ഉണ്ടാകാറില്ല യോഗയാണെങ്കിലും ഇനിയിപ്പം കരാട്ടെയാണെങ്കിലും അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ അസുഖങ്ങൾ കുറവാണ് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് യോഗ ചെയ്യുന്നവർക്ക് പൊതുവെ അസുഖങ്ങൾ കുറവാണ് ഇനി അസുഖങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല മാറ്റങ്ങൾ വരും നല്ലൊരു വ്യായാമ ഇതാണ് മുറയാണ് യോഗ എന്നു പറയുന്ന പണ്ടൊന്നും യോഗ എന്നു പറയുന്നൊരു ഇതില്ല അന്ന് പണ്ട് കാരാട്ടെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതായത് യോഗയെപ്പറ്റി നല്ല അഭിപ്രായമാണ് നല്ലൊരു ഇതാണ് നല്ലൊരു സാരി ശാരീരികമായിട്ടും ഒക്കെ നല്ലൊരു ഇതാണ് മനസ്സിനൊരു നല്ല ആയാസം കിട്ടുന്നൊരു